ഗ്രാമത്തിലെ പുതിയതലമുറ കൃഷി ഒരു തൊഴിലായിട്ടോ ജീവിതമാർഗ്ഗമോ കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതിന് ആരും പ്രോത്സാഹിപ്പിക്കാറും ഇല്ല സ്വാഭാവികവായിട്ടും കൃഷിയെ നാട്ടിൽ ആരും പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ട് കൃഷിക്കാർക്ക് കൃത്യമായി വരുമാനം കിട്ടാത്തതു കൊണ്ട് അവർ ന്യൂജനറേഷനെ കൃഷി പഠിപ്പിക്കണമെന്നോ കൃഷിയിലേക്ക് തിരിക്കണമെന്നോ അവരുടെ മാതാപിതാക്കന്മാർ പോലും വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ഒരു കുട്ടിയോടും നാളെ ആരാകണമെന്ന് ചോദിച്ചാൽ കൃഷിക്കാരനാകണമെന്ന് പറയില്ല പറയാത്തതിൻ്റെ കാരണം അവരുടെ അപ്പനോ അമ്മയോ കൃഷിയാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ഒരു ആദായം കിട്ടുന്നതോ എന്തെങ്കിലും മെച്ചമുണ്ടാകുന്നതോ ഈ കുട്ടികൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഇടയിൽ കൃഷി നല്ലതാണ് അല്ലെങ്കിൽ കൃഷി ചെയ്യണം നല്ല കൃഷിക്കാരനാകണം അത്തരം ചിന്തകൾ ഇല്ല ഒരു കാരണവന്മാരും കുട്ടികളേ അതൊന്നും മോട്ടിവേറ്റ് ചെയ്യുന്നില്ല അങ്ങനെ നീ നല്ല കൃഷിക്കാരനാവണം കൃഷി മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊന്നും ആരും പറയുന്നില്ല സ്വാഭാവികമായിട്ടും ഈ കാലത്ത് കൃഷിയും കൃഷിസ്ഥലവും ഒത്തിരിയുള്ളവർ വരും കാാലത്ത് അതൊരു ബാധ്യതയാണ് അത് തങ്ങൾടെ മക്കൾ കൃഷിയിലേക്ക് തിരിയരുത് എന്ന രീതിയിലാണ് അവർ ആലോചിക്കുന്നതും പെരുമാറുന്നതും അതാണ് അവരെകൊണ്ട് അത് പറയാൻ അവരുടെ ജീവിതം അങ്ങനെയാണ് അവരെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നത് കാരണം അവർക്ക് കൃഷി ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ചും ഇടുക്കി പോലെയുള്ള ജില്ലയിലൊക്കെ കൃഷി ചെയ്താൽ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ വളരെ രൂക്ഷമാണ് അപ്പം കൃഷി ചെയ്യുന്നതിൻ്റെ പകുതി പോലും ആദായമായിട്ട് കിട്ടുന്നില്ല അപ്പം എന്തിനാണ് മക്കൾ കൃഷിയിലേക്ക് തിരിയുക സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥരായ ആളുകൾ കൂടുതൽ നന്നായിട്ട് ജീവിക്കുമ്പോൾ തങ്ങളുടെ മക്കളെങ്കിലും അങ്ങനെ ജീവിക്കട്ടേ എന്ന് കാരണവന്മാർ വിചാരിക്കും മക്കളേ ഒന്നുകിൽ ഉദ്യോഗസ്ഥരാക്കുക സർക്കാർ ഉദ്യോഗസ്ഥരാക്കുക പ്രത്യേകിച്ചും അതല്ല എങ്കിൽ മക്കളേ വിദേശത്ത് വിടുക അതാണ് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതമാഋഗം അവർക്ക് കൊടുക്കുന്നതെന്ന് ഒരു സാമാന്യഗതിയിലേക്ക് കാരണവന്മാർ വിചാരിക്കുന്നു അത്തരം രീതിയിൽ അവരുടെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു പിന്നെ ഇനി കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇനി പുതിയ തലമുറ ആരെങ്കിലും അതിന് താല്പര്യപ്പെട്ടാൽ അവർ തിരയുന്ന കൃഷിരീതികൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നാണ്യവിളകൾ ആയിരിക്കും അതിൽ ഒന്നുകില്ലേലും അല്ലെങ്കിൽ കുരുമുളക് അല്ലെങ്കിൽ റബർ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടാണ് പുതിയ തലമുറ കൃഷിരീതിയിലേക്ക് ചെയ്യുന്നത് അതായത് പഴയ ഒരു രീതിയിൽ കാർഷിക വിളകൾ കപ്പ ചേന ചേമ്പൊന്നും കൃഷി ചെയ്യാൻ ഈ നാട്ടിൽ ആരും മെനക്കെടാറില്ല അഥവാ ആരെങ്കിലും അവനവൻ്റെ ആവശ്യത്തിന് കൃഷി ചെയ്താൽ തന്നെ അവർക്ക് യാതൊന്നും അതിൽ നിന്ന് കിട്ടാറില്ല ഇവിടെ ഉള്ള കാട്ടു പന്നിയും എലിയും തിന്നിട്ട് പിന്നെ മിച്ചമായിട്ടൊന്നും കിട്ടാത്തത്കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ കാണുന്ന കുട്ടികളും കപ്പയോ കാച്ചിലോ അതൊന്നും കൃഷി ചെയ്തു തിന്നുന്നതിനെ പറ്റി ആലോചിക്കുന്നില്ല തന്നെ അല്ല ഈ കാലത്ത് കുറേ ഒക്കെ ഇങ്ങനെ എല്ലായിടത്തും എല്ലാ ഭക്ഷണവും കിട്ടുന്നത് കൊണ്ട് പുതിയ കാലത്തെ കുട്ടികളൊന്നും അത്തരം ഭക്ഷണത്തിനോട് അവർക്ക് താല്പര്യമുണ്ടാവില്ല അല്ലെങ്കിൽ അത് കൃഷി ചെയ്തു ഉണ്ടാക്കണം എന്നൊന്നും ഇല്ല പിന്നെ വളരെ ഒരു ചെറിയ മൈനോറിറ്റിയിലെ ആളുകൾ ഈ ജൈവ കൃഷിയൊക്കെ അവലംബിക്കുന്നു അല്ലെങ്കിൽ ജൈവകൃഷി രീതികൾ കൊള്ളാം എന്നു വിചാരിക്കുന്നു അത്തരം രീതികളിലേക്ക് പോകുന്നു പച്ചക്കറി കൃഷി ചെയ്യുന്നു അത് സ്വയം പര്യാപ്തത ആണ് സ്വാശ്രയത്വമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതു കൊണ്ട് വളരെ മൈനോരിറ്റിയായ കുട്ടികൾ അത്തരം രീതിയിലേക്ക് തിരിയുന്നുണ്ട് അവർ സമ്മിശ്ര കൃഷിയും ജൈവകൃഷിയും പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ട് ഇപ്പം പച്ചക്കറി കൃഷിയൊക്കെയാണ് അല്ലെങ്കിൽ മീൻ വളർത്തലൊക്കെയാണ് അങ്ങനെയുള്ളതിലാണ് കുട്ടികൾ കൂട്തലായിട്ട് ചെയ്യുക അല്ലാതെ പുതിയ തലമുറ കൃഷിയെ ആശ്രയിക്കുന്നില്ല ഒരു തൊഴിലായിട്ടോ ജീവിത രീതിയായിട്ടോ കാണുന്നില്ല ഈ നാട്ടിൽ നിന്ന് അന്യം നിന്നു പോയ കൃഷികളാണ് കപ്പ കൃഷിയും നെൽ കൃഷിയുമൊക്കെ ഇതൊക്കെ ഒരു ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് വളരെ സാധാരണ ആയിരുന്നു പക്ഷേ ഈ കാലത്ത് ഇത് എവിടെയും കാണാനില്ല കാണാനില്ലാത്തതിൻ്റെ കാരണം ഇവിടത്തെ സാഹചര്യങ്ങളാണ് ഒരു തരത്തിലും ആരും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ട് സർക്കാർ തലത്തിൽ ഇതിനൊരു പ്രോത്സാഹനമില്ല കൃഷിക്കാരന് എല്ലായിടത്തും രണ്ടാം കിടയായിട്ട് മാറുന്നതു കൊണ്ട് വരുന്ന ഒരു തലമുറ തീർച്ചയായിട്ടും കൃഷിയെ ആശ്രയിക്കില്ല അവരെ അതിനായിട്ട് ആരും മോട്ടിവേറ്റ് ചെയ്യുകയില്ല ഇനി അപൂർവ്വമായിട്ട് ആരെങ്കിലും വന്നാൽ തന്നെ ഇത്തരം പുതിയ കൃഷി രീതികളിലേകൊക്കെ അതൊന്നും പക്ഷെ ഒരു ലാർജ് സ്കെയിലിൽ പ്രോഫിറ്റബിൾ ആവില്ല